പൂർണ്ണമായും എനിക്കിതിനോട് യോജിക്കുവാൻ സാധിക്കുകയില്ല വിദ്യാധനം സർവ്വ ധനാൽ പ്രധാനം പക്ഷേ എങ്കില് വിദ്യാസമ്പന്നനാണെന്ന് വിചാരിച്ച് ആ വ്യക്തി തത്ത്വങ്ങൾ പാലിക്കുന്നവനാകണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല അ എത്രയോ ആൾക്കാരെ കണ്ടിരിക്കുന്നു അത് യാതൊരു വിദ്യാഭ്യാസവുമില്ലാത്ത വ്യക്തികൾ എത്രയോ നല്ല രീതിയില് പെരുമാറുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട് അവർക്ക് ആ ഒരു പക്ഷേങ്കിൽ വിദ്യാലയത്തിൻ്റെ പടിവാതിലിൽ പോലും നിൽക്കാത്ത അല്ലായെങ്കിൽ ചെല്ലാൻ പറ്റാത്ത വ്യക്തികള് എല്ലാ വിധ സാമാന്യ മര്യാദകള് രീതികള് തത്ത്വങ്ങള് എല്ലാം പാലിച്ചു ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് എത്രയെല്ലാം വലിയവരാണെങ്കിലും എല്ലാ ഏതാ ഏതെല്ലാം വിധത്തില് എത്രയെല്ലാം ഉന്നത നിലവാരമുള്ളവര് അല്ലായെങ്കിൽ ഉന്നത പഠനങ്ങളിൽ എത്തിയിരിക്കുന്നവരാണെങ്കിലും അവര് തത്ത്വങ്ങൾ നിയമസംഹിതകള് ഒന്നും എല്ലാം അങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്തകള് മാധ്യമങ്ങളിൽ കാണുന്ന കാര്യങ്ങള് ഒക്കെ സംഭവിക്കുകയില്ലല്ലോ തീർച്ചയായിട്ടും ഈ റേഡിയോ അതല്ലായെങ്കില് എന്താ ടി വി പത്രം ഇതൊക്കെ നമ്മള് ദൈനംദിനം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അതിൽ കാണുന്ന കാഴ്ചകള് കേൾക്കുന്ന കേൾവികള് ഇവരെയൊക്കെ വിദ്യാസമ്പന്നർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുവോ ഇല്ല തീർച്ചയായിട്ടും അവരൊക്കെ വിദ്യാസമ്പന്നരാണ് പക്ഷേ എങ്കിൽ അവര് ആ വിദ്യയോടൊപ്പം അവര് നിയമ സംഹിതകള് തത്ത്വങ്ങള് അനുസരിക്കുന്നവരായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്തകൾ കേൾക്കുകയില്ലായിരുന്നു നമുക്ക് അറിയാമല്ലോ എത്രയോ ഉന്നതരായ വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ ദിവസവും കാ കേൾക്കുന്ന കേസുകള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട് ദൈവമേ ഒരു ഇനി വരുന്ന ഒരു തലമുറ എന്ത് കണ്ടിട്ടാണ് ഇവര് വളർന്നു വരുന്നത് സാധാരണ നമ്മള് കൊച്ച് കുട്ടികളോടൊക്കെ പറയുവായിരുന്നു കള്ളം പറയരുത് കള്ളം പറയുന്നത് നല്ല ശീലമല്ല എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിലെ പഠിപ്പിക്കുമായിരുന്നു എൻ ഞാൻ ഓർക്കുകയാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തില് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞാൽ സമ്മാനം തരുവായിരുന്നു അങ്ങനെയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കാലം മാറി കോലം മാറി നമുക്കറിയാം ഇന്നിപ്പോൾ തെറ്റ് തെറ്റാണെന്ന് പറയുന്നതാ പറയുന്നവരാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ വളർന്ന് വന്ന മക്കളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ എല്ലാ വിധം ഒരു ദിവസം മൂന്നും നാലും അഞ്ചും കൊലപാതകങ്ങൾ വരെ ചെയ്യാൻ പ്രാപ്തരായിട്ടാണ് അവര് വളർന്നു വന്നിരിക്കുന്നത് അത് അവർക്ക് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടല്ല തീർച്ചയായിട്ടും അവര് വിദ്യാസമ്പന്നരാണ് പക്ഷേ എങ്കിൽ അവർക്ക് അറിവില്ല നിറവില്ല അവര് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ടില്ല വിദ്യാഭ്യാസമെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് സത്യത്തിൽ എന്താണെന്ന് തന്നെ നമ്മള് ചിന്തിക്കേണ്ടി ഇരിക്കുന്നു കുറച്ച് ഡിഗ്രികളോ അതല്ലായെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമോ കുറെ യൂണിവേഴ്സിറ്റി കളോ അല്ലെ പഠനങ്ങളോ ഒന്നും ജീവിതത്തിൽ പ്രാവർത്തിക മാക്കുന്നതല്ല യഥാർത്ഥ ജീവിതം എന്ന് ഉള്ളത് ഇപ്പോളത്തെ കുട്ടികൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സ അതായത് ജീവിതത്തിൽ തത്ത്വങ്ങൾ പാലിക്കണമെങ്കില് സാമാന്യ മര്യാദ ഉണ്ടാകണം മര്യാദ എന്നത് എന്താണെന്ന് ഇന്നത്തെ തലമുറയിൽ നിന്ന് മാഞ്ഞു പോയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല അവര് കേൾക്കുന്നതും കാണുന്നതും എല്ലാം അതുപോലെയാണ് അവര് എവിടെ നോക്കിയാണ് ഒരു മാതൃക കണ്ടുപഠിക്കുന്നത് സത്യത്തില് അവര് എവിടെയാണ് അവർക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന ഏത് മാതൃകയാണുള്ളത് കണ്ണ് തുറന്നു നോക്കുമ്പോൾ മുതൽ കണ്ണ് തുറന്ന് കാണാൻ കേൾക്കാൻ പ്രായമാകുന്ന കാലം മുതൽ അവര് കാണുന്ന കാഴ്ചകള് കേൾക്കുന്ന കേൾവികള് ഇതൊന്നും അവരെ ഇതെല്ലാം അവരെ സ്വാധീനിക്കുന്നുണ്ട് ഇതൊന്നും അവരുടെ ജീവിതത്തില് തത്ത്വങ്ങൾ നൽകുന്നവയല്ല തത്ത്വസ സ തത്ത്വങ്ങൾക്ക് പാലിക്കുന്ന വിധത്തിലുള്ളൊരു ജീവിതം നയിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല തെറ്റെന്താണോ തെറ്റിനാണ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന തെറ്റിനെ കൂടുതൽ സംരക്ഷണം നൽകുന്ന ഒരു കാലഘട്ടത്തില് തീർച്ചയായിട്ടും എത്ര കണ്ട് വിദ്യാ സമ്പന്നരാണെങ്കിൽ പോലും അവര് തത്ത്വങ്ങൾ പാലിക്കുന്നവരാകണം എന്നുള്ളത് യാതൊരു നിർബന്ധവുമില്ല അത് നമ്മള് അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഒക്കെ നിയമ സംഹിതകളെല്ലാം മാറുകയും മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യേണ്ടത് ആവശ്യമാണ് അവിടെ ഉന്നത വിദ്യാഭ്യാസമല്ല വിദ്യാ സമ്പന്നരാകണമെന്നില്ല മനുഷ്യൻ എന്താണെന്ന് മനുഷ്യൻ ആരായിരിക്കണമെന്നും മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും ഉള്ള കാര്യങ്ങൾ വരും തലമുറയ്ക്ക് പകർന്ന് കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലായെങ്കിൽ നമുക്ക് നമുക്കറിയാം ഒരു മൃഗം മറ്റൊരു മൃഗത്തിനോട് പോലും ചെയ്യാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ വിദ്യാസമ്പന്നരായ ജനങ്ങൾ ചെയ്യുന്നുണ്ട് അത് തത്ത്വങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടുമല്ല അവർക്കറിയാം തെറ്റാണെന്നറിഞ്ഞിട്ടും അത് തെറ്റിനെ അംഗീകരിക്കാതെ ജീവിക്കുന്ന വി ധാരാളം വിദ്യാസമ്പന്നര് ഉണ്ട്